ആ എനിക്കൊരു പിന്നെ ആൻഡ്രോയിഡ് ഫോണിന് വേണ്ടിയിട്ടാണ് ആ റേഞ്ച് ട്വൻ്റി ഫൈവ് ട്വ ഇത് ഇരുപത്തയ്യായിരം വരെയാകാം ആ ആ ആ ആ എനിക്ക് വൺ പ്ലസോ അല്ലെങ്കിൽ സാംസങ്ങോ അതിലേതാണ് നല്ലത് അതാണുവേണ്ടത് ആ ആ എനിക്ക് പിന്നെ ക്യാമറ ക്വാളിറ്റി വേണം അത്യാവശ്യ അത്യാവശ്യത്തിനു ക്യാമറ ക്വാളിറ്റി വേണം അതിൽ തന്നെ എ ഫിഫ്റ്റി ഫോറ് അത് റാമ് എത്രയുണ്ട് ഇരുന്നൂറ്റൻമ്പത്താറ് എം ബി എയിറ്റ് ജി ബി മെമ്മറിയും ആണല്ലേ പിന്നെ ക്യാമറയ്ക്ക് എത്ര വരുന്നുണ്ട് പ്രൈ പ്രൈമറി ക്യാമറ എത്രയുണ്ട് ബ്യാക്ക് ആ സെ ആ എയ്റ്റ് ആ ആ ആറായിരം എം എച്ചാകുമ്പം പിന്നെ ഫോണിൻ്റെ ഇത് കൂടുമോ സൈസ് കൂടുമോ വെയിറ്റ് വൺ ഇയർ വാറണ്ടി അല്ലെ ഫ്രണ്ട് ക്യാമറ എത്രയുണ്ട്

ട്രിപ്പിൾ ക്യാം പിന്നെ ഇപ്പം ഈ സാംസങ്ങിൻ്റെ കൂടെ ചാർജറ് കിട്ടുവോ ചാർജറ് ഹെഡ്ഫോണ് അങ്ങനെന്തേലും സ സർവീസുണ്ടോ ചാർജറുണ്ട് അല്ലെ പിന്നെ പിന്നെ വേ അതിൻ്റെ തൊട്ടുള്ളത് ഏതാ ഉളളത് അതിൻ്റെ കുറച്ചും കൂടെ ഒരു കൂടിയ ഇതുള്ളത് അല്ല മുപ്പതൊന്നും വേ ഒരു ട്വ ഒരു ഇരുപത്തയ്യായിരം ഇതിപ്പോൾ ഇരുപത്തിമൂവായിരമല്ലേ പറഞ്ഞത് പിന്നെ ആ പറയൂ അത് ശരി ആ ഹാ ഹാ പിന്നെ നാളെ ഞാനന്നാൽ നേരിട്ട് ഷോപ്പില് വരാം ആ ഓക്കെ ശരി ശരി